എനിക്ക് ആറ് ബനാറാസ് സാരി വേണമായിരുന്നു ആ നിങ്ങളുടെ ഷോപ്പിൽ ബനാറസ് സാരിക്ക് നല്ല കളക്ഷൻസ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് ഒരു ആറ് ബനാറസ് സാരീസ് വേണമായിരുന്നു അപ്പം നിങ്ങളാ ഷോപ്പിൽ കളക്ഷൻസൊക്കെ ഒന്ന് പറഞ്ഞ് തരാമോ എനിക്ക് ഒരു കല്യാണ ഫങ്ഷൻ ഉണ്ടായിരുന്നു ഫങ്ഷന് ഒരു കുറച്ച് നല്ല ഒരു ഗ്രാൻറ്റായിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റീള്ള നല്ല ബനാറസാണ് വേണ്ടത് അപ്പോൾ അപ്പോൾ ഞങ്ങളിത് ഫ്രണ്ട്സിനെല്ലാവർക്കും കൂടീട്ട് വേണ്ടീട്ടാകൊണ്ടന്നെ ആ ഒരു പാറ്റേൺ ഡിഫറെൻറ്റായാലും കുഴപ്പമില്ല ബനാറസന്നെ വേണോന്നുള്ളത് നിർബന്ധമുണ്ട് അപ്പോൾ അതിൽ ബനാറസ് തന്നെ പാറ്റേണും അതിൻറ്റെ മോഡലും കളർ കോമ്പിനേഷനും അതൊക്കെ ഡിഫറെൻറ്റായിക്കോട്ടെ പക്ഷേ എനിക്ക് സാരി എന്താ ഒരു ക്ലോത്തും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരുപോലെ വരുന്ന രീതീലാണ് വേണ്ടത് അപ്പോൾ ബനാറസ് സാരീസിൽ പുതിയ എന്തെങ്കിലും ഡിസൈൻ വർക്കൊക്കെ വരുന്നുണ്ടോ ഓക്കേ നിങ്ങളുടെ സാരീലൊക്കെ സ്റ്റാർട്ടിങ്ങ് റേയ്റ്റ് എങ്ങനെയാണ് വരുന്നത് ഓക്കേ എനിക്കങ്ങനാണെങ്കിൽ ആദ്യം നിങ്ങളുടെ ക്യാറ്റലോഗ്സ് ഒന്ന് കാണിച്ചിട്ട് ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ആ അതിനു വേണ്ടുന്നതെന്തെങ്കിലും ഡിസൈൻ വർക്ക് എക്സ്ട്രാ ചെയ്യേണ്ടണ്ടിണ്ടങ്കിൽ അതുംകൂടി പറയാമായിരുന്നു അപ്പോയിത് കല്യാണം വരുന്നത് നെക്സ്റ്റ് മന്താണ് വരുന്നത് അപ്പോൾ അതിൻറ്റെയൊരു ഒരു ടൂ വീക്സ് മുമ്പേക്കെ നിങ്ങളോട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തരാൻ പറ്റൂലെ കാര്യങ്ങൾ ആ ഓക്കേയാണ് നമ്മളത് നമ്മളങ്ങനെ ചെയ്യാൻ നോക്കീട്ട് ചെയ്യാം എതായാലും നമ്മൾ നിങ്ങളൊന്ന് അതിൻറ്റെ ക്യാറ്റ്ലോഗും കാര്യങ്ങളൊക്കൊന്ന് എനിക്ക് വേണ്ടീട്ട് ഞാൻ നിങ്ങളെ പിന്നീട് വിളിക്കാം കോൺടാക്ട ചെയ്യാം

ഓക്കേ ശരിയെന്നാൽ ഓക്കേ ശരി